അ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിൽ പണ്ടത്തതിനേക്കാളും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളാണിപ്പം വന്നിട്ടുള്ളത് ഏതെന്തൊക്കെയാണെന്നു ചോദിക്കുകയാണെങ്കിൽ പണ്ടു നേരത്തെ ആകുമ്പം ഒരു രണ്ടു നില ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹോസ്പിറ്റലുകൾ തന്നെ നോയമ്പു നാത് അത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് അതിപ്പം വന്നിട്ട് അതിപ്പം വന്നിട്ട് വീണ്ടും വന്നു കുറേ ബിൽഡിങ്ങ് കൂടി ചെയ്തു പ്രത്യേകം ലാബ് സംവിധാനങ്ങളൊക്കെ ആക്കുകയും പിന്നതുപോലെ സ്കാനിങ് റൂമുകൾ സ്കാനിങ് റൂമുകൾ മറ്റെ നേരത്തെ സ്കാനിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇന്നിപ്പം സ്കാനിങ്ങ് സംവിധാനത്തിനൊക്കെ വേണ്ടിയിട്ട് സ്കാനിങ്ങിൻ്റെ റൂമുകൾ റെഡിയായിട്ടുണ്ട് അതുപോലെ എക്സ്റേ സംവിധാനങ്ങൾ റെഡിയായിട്ടുണ്ട് അതുപോലെ കിടത്തി ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള കിടത്തി ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്ഡുകളും കാര്യങ്ങളൊക്കെ ഒരുപാടോരോന്നിനും ഓരോ ഓരോ ഓരോരൊ ഏരിയകളായിട്ടിപ്പം കുട്ടികളെ കിടത്തുന്നതിനു ചിൽഡ്രൻ അങ്ങനെ അങ്ങനെയുള്ള അവരുടെ വാർഡ് അതുപോലെ പിന്നെ സർജറി കഴിഞ്ഞു കിടക്കുന്നതിന് അങ്ങനെ പോകും സർജറിക്കു മുൻപേ കിടത്തുന്ന രീതിയിലുള്ള വാർഡുകളങ്ങനെ ഒരുപാട് രീതിയിലുള്ള വാർഡുകൾ തരം തിരിച്ചു വന്നിട്ടുണ്ടതുപോലെ ചില വലിയ വലിയ സ്കാനിങ്ങുകളൊക്കെ ഒഴിച്ച് എം ആർ ഐ പോലുള്ള സ്കാനിങ്ങുകളൊക്കെ ഒഴിച്ചു ബാക്കിയുള്ള ബാക്കിയുള്ള സീ റ്റീ സ്കാൻ അതുപോലെ അൾട്രാ സൗണ്ട് സ്കാനിങ്ങൊക്കെ വരെ ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള രീതിയിൽ ഇപ്പം ഹോസ് ഫ്രാൻഡേജിൽ നിന്നു ഹോസ്പിറ്റലിപ്പം ഉയർന്നിട്ടുണ്ട് അതുപോലെ പ്രത്യേകം ലാബ് സംവിധാനങ്ങളായിട്ടുണ്ട് അതു തന്നെ പിന്നീടു വന്നിട്ട് ഓരോ ഓ പ്പികൾ ഓരോ ഡോക്ടർ ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർസിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ഓ പ്പികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഓ പ്പീ സംവിധാനങ്ങളും അതുപോലെ ഹോസ്പിറ്റലിൽ പണ്ടു ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന ആളുകൾക്ക് ആൾ അങ്ങനെയുള്ള രീതികൾ ടോക്കൺ സംവിധാനങ്ങൾക്കേർപ്പെടുത്തുകയും ഒരുപാട് പണ്ടത്ര വൃത്തിയില്ലായ്മയിൽ നി നിന്നൊക്കെയിപ്പോൾ ഒരുപാട് കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ശുചീകരണത്തൊഴിലാളികളെ ഒക്കെ വെക്കുകയും നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള സംവിധാനങ്ങളോടു കൂടി അതുപോലെ എല്ലാ കറികൾക്കും മിതത്വവും ക്യൂവൊക്കെ പാലിക്കുന്നതിനു വേണ്ടിയിട്ട് സെക്യൂരിറ്റി സർവ്വീസുകളൊക്കെ വെച്ചിട്ടു നല്ല രീതിയിൽ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റൽ നല്ല രീതിയിലാണിപ്പം നല്ല നല്ല മാറ്റങ്ങളാണ് ഹോസ്പിറ്റലുകൾ വന്നിട്ട് വന്നിട്ടുള്ളത് അതുപോലെ കാർഡ്യോളജി വിഭാഗത്തിനു വേണ്ടിയിട്ടൊരു പ്രത്യേകമൊരു വിങ്ങായിട്ടൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലും തന്നെ നമുക്കവിടേ റെഫറൻസെടുത്തത് അവിടെ നമുക്കു കാണിക്കാവുന്നതാണ് അതുപോലെ അത്യാഹിത വിഭാഗവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ടതിപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാവുന്നതല്ല പിന്നെ നല്ല വൃത്തിയായിട്ടും എല്ലാകാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ടു പോകുന്ന രീതീ ഞങ്ങളുടെ ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ഹോസ്പിറ്റലുകൾ നല്ല രീതിയിലായിട്ടുണ്ട്